കലയോടും കരകൗശലത്തോടും താല്പര്യം ഉണ്ടാകുന്ന ഒരു കലാബോധം വേണം യുക്തിബോധം ഉണ്ടെങ്കിൽ മാത്രമേ കലാബോധം ഉണ്ടാകും കലാബോധം ഉണ്ടെങ്കിൽ മാത്രമേ കലയോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവത്തുമുള്ളൂ കരകൗശലം കരകൗശലത്തോടുള്ള താല്പര്യം ഇവിടെ വളർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഈ കൊറോണക്ക് ശേഷം ഓരോരുത്തനും ഓരോരോ പുതിയ അറിവുകളാണ് മനുഷ്യരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് ഇതുമൂലം ഓരോരോ ആളും വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നു അങ്ങനെ കരകൗശലവും കലയും ഇവിടെ വളർന്ന് വരുന്നു കല എന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കഴിവിലാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് മിനിമം നമ്മൾ ഒരു കലയെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം അങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് കലയോടുള്ള ഇഷ്ടം എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരുന്നു എന്നതാണ് കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത് കല എന്നത് വെച്ചാൽ ഒരു ഒരു ഒരു ഒരു മനുഷ്യൻ്റെ വികാരമായാണ് ഞാൻ കണക്കാക്കുന്നത്